ഫേസ് ക്രീമ് ഞാൻ വാങ്ങി ഉപയോഗിച്ചത് നല്ലൊരു പ്രൊഡക്റ്റാണ് മുഖക്കുരു പോവാനും കണ്ണിൻ്റെ താഴെയുള്ള ഡാർക്ക് സർക്കിൾസ് പോവാനൊക്കെ ഈ ക്രീമ് ഭയങ്കര ഉപകാരമാണ് അതുപോലെ തന്നെ സ്കിന്നിൻ്റെ ഉള്ളിലെ ഡെഡ് സെൽസിനെയെക്കെ നീക്കം ചെയ്തിട്ട് പുതിയ സ്കിന്നു വരുകയും നമുക്ക് സ്കിന്നിൽ നിറയെ നല്ല ഗ്ലോ തോന്നിക്കുകയും ചെയ്യും അതുപയോഗിച്ചതിനു സേ ശേഷം നല്ല മാറ്റമുണ്ട് സ്കിന്നിന് ഉപയോഗിക്കാനും വളരെ എളുപ്പമാണ് അധികം ഓയിലി ഒന്നും അല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു ലുക്ക് ത തരുന്നൊരു ഫേസ് ക്രീമാണ് നല്ലൊരു പ്രൊഡക്റ്റാണിത് നമ്മൾ ഡെയ്ലി യൂസ് ചെയ്യാനും അതുപോലെ സൈഡ് എഫക്റ്റ്സ് ഒന്നും ഇല്ലാത്തൊരു ഫേസ് ക്രീമാണ് ഇതുപയോഗിച്ച് എന്തായാലും മാറ്റം നമുക്ക് പെട്ടന്ന് അറിയാനായിട്ട് സാധിക്കും മുഖക്കുരുവും അതുപോലെ ഡൾനെസ്സും എല്ലാം പോവാൻ വേണ്ടിയിട്ട് ഈ ഫേസ് ക്രീം സഹായിക്കും നല്ലൊരു പ്രൊഡക്റ്റാണ്